ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും പഠിച്ചതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് ചിത്രരചന പഠിച്ചത് അപ്പം നമുക്ക് കൂടുതലായിട്ടും ചിത്രരചനയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ചെറുപ്പത്തിൽത പിന്നെ നമ്മൾ മക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ചെറുപ്പത്തിൽത്തന്നെ ചിത്രരചനയും കാര്യങ്ങളൊക്കെ പഠിക്കുകായാണെങ്കിൽ നമുക്ക് വലുതായിവരുംതോറും നമുക്ക് നല്ല രീതിയിലുള്ള കഴിവും കാര്യങ്ങളൊക്കെ ചിത്രരചന രചനയിൽനിന്ന് നമുക്ക് ലഭിക്കും അപ്പോ ൾ നമുക്ക് കൂടുതലായിട്ടും വരക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് ചെറുപ്പം തൊട്ടു തന്നെയാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സമയങ്ങളിൽത്തന്നെ ചിത്രരചന പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ലൊരു കലാകാരന്മാരെയും കലാകാരിമാ പല കലാകാരികളെയും കൂടി വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ആ സമയങ്ങളിലൊക്കെ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്നുപറ ഉണ്ടോയെന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് കാരണമെന്താണെന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിത്രരചന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യം പോലെയാണ് നമുക്ക് വലിയ രീതിയിലുള്ളൊരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടിയിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചിത്രരചനയിൽത്തന്നെ മഹാന്മാരായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മളിവിടെത്തന്നെ ഇപ്പോൾ ഒരു കോളേജ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വിസ്മയ ആർട്ട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് അവടെ നിന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചിത്രരചനയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്ട് ആൻഡ് ആർട്ടുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് വേണമെങ്കിൽ ചിത്രരചനയും കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്